എന്റെ പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ രണ്ടാമത്തെ പ്രോഡക്റ്റ് ഫാൻ ആണ് ഫാൻ ഞാനൊരു ടേബിള് ഫാൻ ആണ് മേടിച്ചത് എന്താണ് മേടിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സീലിംഗ് ഫാൻ ആവുമ്പോൾ നമുക്ക് മേലെ അതായത്

അതാവുമ്പോൾ ടേബിള് ഫാന് ഫാൻ ആണെങ്കിൽ ഇപ്പോൾ നമ്മള് എവിടെയാണ് ഇരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ട് വയ്ക്കാം അങ്ങനെ ഒരു ഉപകാരത്തിന് വേണ്ടിയാണ് ടേബിള് ഫാൻ മേടിച്ചത് അപ്പം പിന്നെ അതിന്റെ ഇത് അതായത് ഡിസ്അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ പെട്ടെന്ന് പൊടി കയറാനുള്ള ഒരു സാധ്യതയുണ്ട് അതൊരു ഡിസ്അഡ്വാന്റ്റേജ് ആണ് അത് കാറ്റടിക്കുന്നത് അനുസരിച്ച് പൊടി കയറും നമ്മള് അഴിച്ചു വരുന്ന പൊടി അങ്ങനെയുള്ളതൊക്കെ പിന്നെ നമുക്ക് ക്ലീന് ചെയ്യാനുള്ളൊരു ഓപ്ഷന് ഉണ്ട് എങ്കിലും പൊടി കയറും പിന്നെ മറ്റേതിലും പൊടി ഉണ്ടാവും പക്ഷേ ഇതിന്റടുത്തോളം എന്തായാലും പൊടി ഉണ്ടാവില്ല പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് കാറ്റ് ഭയങ്കരമായിരിക്കും അതായത് ഫസ്റ്റിൽ ഇട്ടാലും കാറ്റ് ഭയങ്കരമായിരിക്കും ആ പക്ഷേ നമ്മൾ സീലിംഗ് ഫാന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ക്യാ കാറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ ഇത് ഫസ്റ്റില് ഇട്ടാൽ ഭയങ്കര കാറ്റായിരിക്കും പിന്നെ അതിലും കുടുതല് കാറ്റായിരിക്കും സെക്കന്റും തേര്ഡും ഒക്കെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറെ പ്രശ്നം ഒന്നുമില്ല